ആ അതെലോ ഇത് ആരാണ് ആ സാർ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മെയിൻ ഫുഡ് ഐറ്റംന്ന് പറയുന്നത് പിടിയും കോഴിയും ആണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംന്ന് പറയുന്നത് പിടിയും നാടൻ കോഴിക്കറിയും ആണ് അതുപോലെന്നെ ദം ബിരിയാണി പിന്നെ ചിക്കൻ ചിക്കൻ ചില്ലി ആൻഡ് പൊറോട്ട ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ മെയിൻ ഐറ്റംന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പിടിയും കോഴിയും ആണ് വരുന്നത് ആ അതെ സാർ പിടിക്ക് വരുന്നത് നാടൻ കോഴിക്കറി തേങ്ങ തേങ്ങ വരുത്തരച്ചത് നാടൻ കോഴിക്കറി ആണ് കോമ്പിനേഷൻ വരുന്നത് സാർ ഈ പിടി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അരി പൊടിപ്പിച്ച് നല്ല പച്ചരി പൊടിപ്പിച്ച് വറുത്ത് അത് അത് കുഴച്ച് എടുത്ത് നല്ല ചൂട് വെള്ളത്തിൽ കുഞ്ഞ് കുഞ്ഞ് ഉരുളകൾ ആക്കീട്ട് വേവിച്ച് എടുക്കുവാണ് ചെയ്യുന്നത് കുറെ ഒരു ഒന്നൊന്നര മണിക്കൂർ അതീ കിടന്ന് വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടാണ് ഈ പിടി ഉണ്ടാവുന്നത് അതിൻ്റെ കൂടെ നല്ല നാടൻ കോഴിയും കോഴീൻ്റെ ഇറച്ചി വെച്ച് കോഴിക്കറി വെക്കുവാണ് ചെയ്യുന്നത് തേങ്ങാ പാലൊക്കെ അരച്ച് ചേർത്ത് നല്ല നാടൻ കോഴിക്കറി ആണ് വെക്കുന്നത് പിന്നെ റേറ്റ് വരുന്നത് ഒരു പ്ലേറ്റിന് അഞ്ഞൂറ് രൂപ വീതമാണ് എന്താ ഡോക്ടറേ എന്താ സാർ അത് അത് ഇപ്പം ഒരാൾക്ക് ആദ്യം ഫുഡിംഗ് രീതി വെച്ച് ആയിരിക്കും നോർമലി അതൊരു രണ്ട് പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് ഉള്ളത് ആ ചിക്കൻ കറി പിന്നെ നോർമലി എല്ലാം പോലെ തന്നെ ആ ഇവിടത്ത സ്പെഷ്യലെന്ന് പറയുന്നത് ബീഫ് ചില്ലിയും പൊറോട്ടയും ആണ് സാർ ആ ഫ്രൈ ടൈപ്പ് ആണ് സാർ ആ നല്ല മറ്റേ ഇത് ഗ്രീൻ ഫ്ലേക് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് ആണ് വരുന്നത് നല്ല സ്പൈസി ആയിട്ട് ആ ബിരിയാണി ഫ്രൈഡ് റൈസ് ഞങ്ങൾ ചെയ്യുന്നില്ല സാർ ഞങ്ങൾ ഇപ്പോൾ ബിരിയാണി ചെയ്യുന്നുണ്ട് ദം ബിരിയാണി ആണ് ചെയ്യുന്നത് പിന്നെ നോർമൽ ബിരിയാണിയും ചെയ്യുന്നുണ്ട് അതിന് റേറ്റ് വരുന്നത് ദം ബിരിയാണിക്ക് ആണെങ്കീ നൂറ്റി എൺപത് രൂപയും നോർമൽ ബിരിയാണിക്ക് നൂറ്റൻപത് രൂപ ആണ് റേറ്റ് വരുന്നത് ആ നൂറ്റൻപത് വൺ ഫിഫ്റ്റി ദമ്മിന് വൺ എയിറ്റി റൂപ്പീസ്സാണ് സാർ ആ ദം ബിരിയാണീന്ന് പറയുമ്പം കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ ഒരുപാട് ടൈം കുറച്ചും കൂടി കൂടുതൽ എടുത്ത് വർക്ക് ചെയ്യുന്നത് അല്ലേ അത് കനലിൽ ഒക്കെ ഇട്ട് വേവിച്ച് എടുക്കുന്നത് ആണല്ലോ അപ്പം അതാണ് അതിൻ്റെ അത് ഫ്രൈ ചെയ്തിട്ട് ഗ്രേവിയിൽ ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയതാണ് സാർ ചിക്കൻ എല്ലാം ഉണ്ട് ചിക്കനും ബീഫും എല്ലാം അവൈലബിൾ ആണ് സാറിന് ഞങ്ങളിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെക്കുന്നതല്ല നിങ്ങൾ ഓർഡർ അനുസരിച്ച് എന്താ വേണ്ടേന്ന് വെച്ചാൽ നിങ്ങൾ അത് പറയുന്ന ടൈമിനുള്ളിൽ ഉണ്ടാക്കി തരുവാണ് ചെയ്യുന്നത് ആ ഹോം ഡെലിവറി ഉണ്ട് ആ സാർ ഇപ്പം ഓർഡർ ചെയ്യാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിൽ ഞങ്ങൾ ഒരു ഹാഫ് ആൻ അവറിൽ വൺ ആൻഡ് ഹാഫ് ആൻ അവറിൽ വീട്ടിൽ എത്തിച്ച് തരുന്നത് ആയിരിക്കും ആ ഓക്കെ സാർ ഞാൻ ഒരു മിനിറ്റ് ഞാൻ സാറിന് എത്രയാണ് റേറ്റ് വരാന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞരാ സാർ ഇത് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റെൺപത് രൂപയാണ് സാർ ആ ഓ ഒഫ്കോഴ്സ് സാർ ആയിരം രൂപ പേ ചെയ്താൽ മതി ആ ഓക്കെ ഓക്കെ താങ്ക് യൂ ആ ഗൂഗിൾ പേ ഉണ്ട് ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി ആ ഓക്കെ